ഞങ്ങളുടെ അടുത്തുള്ള തീയേറ്ററുകള് എന്ന് പറഞ്ഞാല് കൈരളി സിനിമാക്സ് ശ്രീദേവി സിനി പാലന്സ് ശ്രീ കൃഷ്ണ അതുപോലെ ഇന്ത്യൻ മാളില് ഡോൾബി ഒരു വിധം ഒരുവിധം നല്ല എല്ലാ സിനിമകളും കാണാൻ ഞങ്ങള് പോകാറുണ്ട് മക്കൾക്കും അച്ഛനും സിനിമ കാണാനുള്ള താല്പര്യം ഉള്ള കാര്യമായതുകൊണ്ട് അതിലൊക്കെയുപരി മക്കൾക്ക് സിനിമ കണ്ടുകൊണ്ട് നിക്കുമ്പം ആ ഇടവേള സമയങ്ങളിൽ കടല ഐസ് ക്രീം ഇതൊക്കെ വാങ്ങിയിട്ട് തിന്നും ഇതൊക്കെ ഇങ്ങനെ കഴിച്ചാണ്ട് സിനിമ കാണുക കാരണം അവർക്കെല്ലാം താല്പര്യമുള്ളതുകൊണ്ട് പിന്നെ എല്ലാ അവധി ദിവസങ്ങളിലും കുട്ടികളെയും കൂട്ടി ഞങ്ങള് സിനിമ കാണാറുണ്ട് പിന്നിപ്പോള് ഇവിടെ പുതിയത് ഇറങ്ങിയ സിനിമകൾ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിന്റെ ആടുജീവിതം ഫഹദ് ഫാസിലിന്റെ ആവേശം ഇതൊക്കെ പോകെ ഞങ്ങള് പോയിക്കണ്ട സിനിമകളാണ് പിന്നെ നല്ല ആസ്വദിക്കാൻ പറ്റിയ സിനിമകളായിരുന്നു ആവേശം മോന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടമാണ് ആവേശം അപ്പോള് അവന്റെ നിർബന്ധപ്രകാരം ആയിരുന്നു ഇപ്പോള് ലാസ്റ്റ് ആയിട്ട് ഞങ്ങൾ ആ സിനിമ കണ്ടത് പിന്നെ അവന്റെ അച്ഛനും അതുപോലെ തന്നെയാണ് പൃഥ്വിരാജിന്റെ സിനിമ അല്ല ഇഷ്ടൊള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനെന്ന് പറഞ്ഞാണ്ട് പിന്നെ ആട് ജീവിതം സിനിമ നല്ലൊരു സിനിമയാണെന്ന് അങ്ങനെ ആളുകൾ അങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ആ സിനിമ കാണാൻ പോയതും അങ്ങനെ ഞങ്ങള് കൈരളിയില് പോയി ആ സിനിമ കണ്ടു പിന്നെ അതുപോലെന്നെയാണ് മക്കള്ക്ക് മോള്ക്ക് മാളികപ്പുറം സിനിമ ഞങ്ങള് കാണാന് പോയിരുന്നു മോളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് മാളികപ്പുറം അങ്ങനെ ഞങ്ങള് കൈരളിയിൽ പോയിട്ട് തന്നെയാണ് ഈ മാളികപ്പുറം സിനിമ കണ്ടതും